ഇപ്പോൾ നമ്മളെന്ത് ഫീൽഡെടുക്കുവാണെങ്കിലും അതിന് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മിഷനറീസ് വന്നിട്ടുണ്ട് കൃഷിക്കാണെങ്കിലും അതുപോലെ മൃഗ പരിപാലനം ആയാലും ശരി ക്ഷീര ഉൽപാദനം ആയാലും ശരി അങ്ങനെ പല ഫീൽഡിലും അതിൻറെതായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നതരത്തിലുള്ള മിഷനറീസൊക്കെ വന്നിട്ടുണ്ട് കൃഷിയിലാണെങ്കി ഇപ്പോ കൃഷി സംരക്ഷിക്കാനായിട്ട് എന്താ പറയുക പലതരത്തിലുള്ള വളങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെതന്നെ അയിന് വെള്ളം വെള്ളം കൃഷിക്ക് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പമ്പ് അങ്ങനെയുള്ള മിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് മോട്ടറ് അതുപോലെ ക്ഷീര ഉൽപാദനത്തിന് ആണെങ്കിൽ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് അതിന് അതിൻ്റേതായ ഒരു മിഷൻ ഉണ്ട് വല്ല്യ ഫാമിലൊക്കെ ആണ് വെച്ചാൽ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മള് പശുവിനെ കറക്കുന്നത് അയിന് അയിനു പറ്റിയ മിഷൻസ് ഉണ്ട് അതുപോലെതന്നെ ട്രാക്ടർസ് ഉണ്ട് ട്രാക്ടർ ഉണ്ട് ഇപ്പോൾ പിന്നെ വന്നിരിക്കണ പറഞ്ഞാൽ നമ്മള് ജസ്റ്റ് ട്രാക്ടർ ഉപയോഗിച്ച് കൊയ്യുക അപ്പോൾ നമുക്ക് നെല്ല് ഒരു കൊയ്യണ മിഷൻ വന്നിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നെല്ല് സെപ്പറേറ്റ് അതുപോലെതന്നെ വൈക്കോൽ സെപ്പറേറ്റായിട്ട് നമുക്ക് കിട്ടും അത് പറഞ്ഞുവെച്ചാൽ നമ്മള് അത് ബണ്ടില് ബണ്ടിലായിട്ട് വൈക്കോലിനെ സെപ്പറേറ്റ് ആക്കുകയും അത് എളുപ്പത്തില് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയില് ആക്കാൻ വേണ്ടി നമുക്ക് പറ്റും ആ മിഷൻ ഉപയോഗിച്ചിട്ട് അതൊക്കെ വളരെ ഈ ഫീൽഡിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ മിഷിൻസൊക്കെ വലിയ ഫാമുകളിലാണെങ്കിൽ ഇത്ര പശുവിനെ കറക്കാൻ വേണ്ടി മിഷൻസ് ഉപയോഗിക്കണ മലം മൂലം സമയവും അതുപോലെതന്നെ ആൾക്കാരും നമുക്ക് ലാഭിക്കാൻ പറ്റും